ഇപ്പോൾ പാചകം എന്ന് പറഞ്ഞ് കഴിഞ്ഞാല് നമുക്ക് ഒരു കല മാത്രമല്ല വേറൊരാൾക്ക് നമ്മള് ചെയ്ത് കൊടുക്കുന്ന അതിപ്പം അവർക്ക് നല്ലൊരു രുചിയുള്ള ഭക്ഷണം എന്ന നിലയില് നല്ല രീതിയില് ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന ഒരു കാര്യം കൂടെ ആണ് കുക്കിങ് എന്ന് വേണമെങ്കിൽ പറയാം അപ്പം അത് നമ്മള് നല്ല രീതിയില് കൈകാര്യം ചെയ്തിട്ടില്ലെങ്കില് ചിലപ്പം പണിയെല്ലാം പാളാം ആവർക്ക് പല രീതിയിലുള്ള അസുഖങ്ങളും കാര്യങ്ങളൊക്കെ വരാം വയറിന് ചെറിയ പ്രശ്നങ്ങള് കാര്യങ്ങള് ഒക്കെ വരാം അപ്പം നമ്മള് നല്ല രീതിയില് അത് ചെയ്ത് കൊടുക്കുക എന്ന് ഉള്ളതാണ് ഒരു കാര്യം എന്ന് വേണെങ്കിൽ പറയാം അപ്പം അത് നമ്മള് നല്ല രീതിയില് ചെയ്ത് കൊടുത്തില്ലെങ്കില് പലവിധ പ എന്താ പറയുക പിഴകളും സംഭവിക്കാം അപ്പം നമ്മള് നല്ല രീതിയില് അത് ചെയ്ത് കൊടുക്കുക അപ്പം അതിനായിട്ട് നമ്മള് നല്ല രീതിയിലുള്ള കറി പൗഡറുകള് ഇപ്പം സാമ്പാറ് ഇണ്ടാക്കുകയാണെങ്കില് സാമ്പാറ് കറി പൗഡർ നല്ല നല്ല എന്താ പറയുക ക്വാളിറ്റി ഉള്ള കറി പൗഡറും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യാൻ വേണ്ടി കൊടുക്കുക പിന്നെ എന്ന് പറഞ്ഞ് കഴിഞ്ഞാല് നല്ല രീതിയിലുള്ള സാധനങ്ങളൊക്കെയാണ് കൊടുക്കുക അതാണ് മെയിൻ ആയിട്ട് വേണ്ടത് അപ്പം നമ്മള് അതിന് നല്ല രീതിയിലുള്ള ചേരുവകളൊക്കെ ചേർത്ത് നമ്മുടെ പൊടിക്കൈകള് അതിനകത്ത് കൂടുതലായിട്ടും ചേർത്തിട്ട് വേണം ചെയ്യാൻ വേണ്ടിയിട്ട് അതിന് പ്രത്യേകിച്ച് ചേരുവ ഒന്ന് എന്നില്ല നമ്മുടെ കൈ കൈപ്പുണ്യം എങ്ങനെ ആണോ നമ്മള് ഇടുന്നതിന് അനുസരിച്ച് ഇപ്പം മുളക് പൊടി ആണെങ്കിലും ഉപ്പാണെങ്കിലും നമ്മള് ഇടുന്നതിന് അനുസരിച്ചാണ് അതിൻ്റെ ടേസ്റ്റും കാര്യങ്ങളൊക്കെ വ്യത്യാസം വരിക